നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മലയാളഭാഷ വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ മാതൃഭാഷ മലയാളമാണല്ലോ അപ്പോൾ മലയാളത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വളരെ വളരെ വലുതാണ് എല്ലാ മലയാളികളും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത് ഒന്നാണ് മലയാളം എന്നിരുന്നാലും മലയാളത്തിൻ്റെ ഉപയോഗം നമ്മുടെ കേരളത്തിൽ മാത്രമേ കൂടുതലും ആയിട്ട് വരുന്നുള്ളൂ അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വെല്ലുവിളിയാണ് പുറത്തുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് ഒരു ഗ്ലോബൽ ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷാണ് ഏറ്റവും ആദ്യമായിട്ട് പ്രധാനമായിട്ട് മനുഷ്യൻ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് പക്ഷേ ബേസിക്കായിട്ട് അത്യാവശ്യമായിട്ട് നമ്മുടെ മലയാളികൾ എന്ന നിലയിൽ നമ്മൾ പഠിക്കേണ്ടത് മലയാളമാണ് അതുകൊണ്ട് നമ്മുടെ മലയാള ഭാഷ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ